പ്രിയപ്പെട്ട സുഹൃത്തേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റിൻറെ ഡിജിറ്റൽ പകർപ്പ് സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് ഞാൻ ഇതാരോട് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് നിന്നെ കിട്ടിയത് ഞാനിപ്പം ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് നിന്നോടത് പറയാൻ സാധിക്കും ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാൻ ഒരു ഡിജിറ്റൽ പകർപ്പാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് അതിനായി ഒരാളെ റെഫറെൻസ് വയ്ക്കണം നിനക്ക് അതിന് സാധിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിപ്പോൾ വേറെ ആരോടും ചോദിക്കാനായിട്ടില്ല കാരണം ഉറ്റസുഹൃത്തെന്ന് പറയാനായിട്ട് നീ മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഈയൊരു സർട്ടിഫിക്കറ്റ് നീ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് പേടിക്കാണ്ട് വിദേശത്ത് പോകാം അതാകുമ്പോൾ നീ റെഫറെൻസിന് ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നോട് ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി എനിക്ക് അത്രയും ദൂരം സഞ്ചരിച്ച് വരികയും വേണ്ട ഇവിടെ റെഫറെൻസിനായി ആൾ ഉള്ളപ്പോൾ അവർ അത് സൂക്ഷിക്കുകയാണെങ്കിൽ ഞാനില്ലാത്ത സമയത്തും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിന്നെ വെച്ച് എനിക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി നീ നീ എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്